ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും കലക്ക് വേണ്ടിയിട്ട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കലാപരമായ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്കൂളുകൾ ഇപ്പം കൂടുതലായിട്ട് ശ്രദ്ധിക്കാറുണ്ട് ഇപ്പം ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും കുട്ടികൾക്ക് ഒരു പീരീഡ് ഇങ്ങനെ കലാപരമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്കൂളുകളിൽ മാറ്റിവയ്ക്കാറുണ്ട് ഞാൻ പത്ത് വർഷം പഠിച്ച സ്കൂളിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിലായിരുന്നു ഈ പരിപാടിയെന്ന് പറയുന്നത് അപ്പം അതിന് ഇഷ്ടംപോലെ പരിപാടികളുണ്ട് മ്യൂസിക്കൽ മ്യൂസിക്കിൽ ആണെങ്കിൽ തന്നെ പിയാനോ കീബോർഡ് വയലിൻ ഗിറ്റാറ് ഏതു വേണമെങ്കിലും പഠിക്കാം പിന്നെന്താ യോഗ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് പിന്നെ സ്റ്റിച്ചിങ് അത് പിന്നെ ഇഷ്ടംപോലെ ഡാൻസ് പാട്ട് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് അത് ഏതു വേണമെങ്കിലും നമുക്കിഷ്ടം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ് ഡ്രോയിങ് പോലുള്ള ഇഷ്ടംപോലെ വെറൈറ്റികളിണ്ട് അതിപ്പം കുട്ടികളുടെ ആ ഒരു താല്പര്യത്തിനനുസരിച്ച് അവർക്കേതാണോ പ്രിയം അതുമായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് പോവാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അവർക്കിഷ്ടമുള്ള സംഭവം സെലെക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിട്ട് സ്കൂളുകൾ ഇപ്പം ഇങ്ങനെ പരിപാടികൾ ചെയ്യുന്നുണ്ട് പിന്നെ അതല്ലാതെ ശനി ഞാൻ പഠിച്ച സ്കൂളുകളിൽ വെള്ളിയാഴ്ച അവസാനത്തെ പീരീഡ് ക്ലാസ്സുകളിൽ തന്നെ കുട്ടികൾക്ക് അവരുടെ കലാപരമായ കാര്യങ്ങളും അവർ പഠിച്ച ഡാൻസ് ആയിക്കോട്ടെ പാട്ടായിക്കോട്ടെ സ്കിറ്റ് ആയിക്കോട്ടെ അവർ അവരുടെ അവസരങ്ങൾ അവിടെ വന്നുനിന്ന് പറയുക പാടുക അവർ എന്ജോയ് ചെയ്യുക പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുട്ടികളെ അവരുടെ അവർക്ക് അവരുടെ ഉള്ളിലുള്ള ടാലെന്റ്സ് പുറത്ത് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധിക്കും അപ്പോൾ അവർക്ക് അവരുടെ ടാലെന്റ്റ് മനസ്സിലാക്കി കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കാനായിട്ടും അതിലൂടെ അവർക്ക് സമ്മാനങ്ങൾ നേടാനും സാധിക്കും